ഹായ് ഞാൻ വിളിച്ചത് നിങ്ങളുടെ ട്രാവൽ ഏജൻസി വഴി എനിക്കൊരു കാർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ശനിയാഴ്ച്ച ഞാനും എൻ്റെ വീട്ടിൽ ഉള്ളവരും കൂടി പൊന്മുടിക്ക് പോവണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ട്രാവൽ ഏജൻസി വഴി ഒരു ക്യാബ് വേണമായിരുന്നു കാരണം കഴിഞ്ഞ ആഴ്ച്ച ഞങ്ങൾ ഇതുപോലെ വാഗമൺ പോയിരുന്നു വാഗമൺ പോയപ്പോൾ നിങ്ങളുടെ ഏജൻസിയിൽ നിന്നാണ് ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ എല്ലാ വീട്ടുകാർക്കും എനിക്കും വളരെ നല്ല അഭിപ്രായമാണ് നിങ്ങളുടെ ഡ്രൈവറിനെകുറിച്ച് കാരണം പുള്ളി ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു മൂന്ന് ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു മൂന്ന് ദിവസവും പുള്ളി ഞങ്ങൾക്ക് അവിടുത്തെ സ്ഥലങ്ങൾ എല്ലാം കാണിച്ചുതരികയും ടൂർ ഗൈഡിനെ പോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല ഹോട്ടൽ കാണിച്ചു തന്നു ഞങ്ങളുടെ സ്റ്റേയുടെ കാര്യമൊക്കെ ഉറപ്പ് വരുത്തിയത് പുള്ളിയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുപോവുന്നതും ഓരോ സ്ഥലങ്ങളിലേക്ക് മാറ്റി കൊണ്ടുപോവുന്നതും ഒക്കെ പുള്ളി തന്നെയാണ് നോക്കിയത് ഞങ്ങൾക്ക് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല അവിടെ ഓരോ സ്ഥലങ്ങൾ കണ്ടെത്താനോ അല്ലെങ്കിൽ മാറാനോ ഒന്നും കഷ്ടപ്പെടേണ്ടി വന്നില്ല നേരത്തെ ഉള്ള യാത്രയൊക്കെ സു എനിക്ക് തോന്നുന്നു ഇതൊരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വട്ടമാണ് നിങ്ങളുടെ ട്രാവൽ ഏജൻസി വഴി ഞാൻ പോവുന്നത് അപ്പം അതിലെ എല്ലാ യാത്രകളും എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇത്തവണ പോവാനും ഞാൻ നിങ്ങളെ തന്നെ വിളിക്കുന്നത് അപ്പോൾ എനിക്ക് എൻറെ ഒരു ആഗ്രഹം ഇത്തവണയും കഴിഞ്ഞ തവണത്തെ അതേ ഡ്രൈവറിനെ തന്നെ തരുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് നല്ലതായിരുന്നു ആ ഞങ്ങൾക്ക് അയാളെ ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം പോയി അറിയാമല്ലോ അപ്പം പുള്ളിക്കും ഞങ്ങളു ടെ കാര്യം ചെയ്യാൻ എളുപ്പം ആയിരിക്കും അപ്പം ക്യാബിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ആ നേരത്തെ ബുക്ക് ചെയ്തിരുന്നത് വെച്ച് ഡീറ്റെയിൽസ് എന്തെങ്കിലും കളക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കളക്റ്റ് ചെയ്ത് ക്യാബ് ഡ്രൈവറിൻ്റെ നമ്പറോ പേരോ എന്തെങ്കിലും ഒന്ന് തന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഈ ട്രിപ്പ് കൂടെ ഒന്ന് പ്ലാൻ ചെയ്യാമായിരുന്നു നിങ്ങൾ അത് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു